ഹലോ ആ ഞാൻ എനിക്കൊരു ഫോണ് വേണമായിരുന്നു ഒരാണ്ട്രോയിഡ് സെറ്റ് ഫോണ് വേണമായിരുന്നു അപ്പോൾ ആ ആ അതെയതെ അവിടെ പ്രൈസ് ഒരു പത്ത് പതിനഞ്ചിനക്കെ ഇടക്ക് നിൽക്കുന്നത് ആ ഫൈ ജീ ഉണ്ടോ അതെയതെ എതക്കെക്കെ ആ അതെയതെ റേഞ്ച് പതിനഞ്ച് പതിനഞ്ച് പതിനെട്ടിനൊക്കെ ഇടക്ക് വന്നാലും കുഴപ്പമില്ല കമ്പനിയ ഏതാ ഏതൊക്കെ കമ്പനിയൊണ്ടിപ്പം സാംസങ്ങ് ആ എല്ലാം ഉണ്ട് ആപ്പിളക്കെ ഉണ്ടല്ലോ അല്ലേ

ആ ആ ആ സാംസങ്ങിനിപ്പം എത്ര രൂപ എത്ര രൂപയുടെ ഇതുവരും ഇപ്പം അതിന് മോളിലേക്കിണ്ട് ആ ശരി ശരി ഫൈ ജിയാണല്ലോ അതും അല്ലേ ഇ എം ഐ എടുക്കാന് പറ്റുമോ നമുക്ക് ഇ എം ഐ ഇല്ല ആ ആ അങ്ങനെ ആ ആ അങ്ങനെവ അങ്ങനെയാണ് നമുക്ക് മഹീന്ദ്ര പോലുള്ള ബാങ്കിലിരുന്ന് എടുക്കാവുന്നതാണ് ഇ എം ഐ എടുക്കാവുന്നതെത്ര രൂപ ആ എത്ര രൂപ നമ്മൾ മാസം അടയ്ക്കേണ്ടി വരും അങ്ങനെയെന്തെങ്കിലും ഒരൂഹം ആ ഇതെവിടെയായിട്ട് ഷോപ്പെവിടായിട്ട് വരും ആ ആ ആ ആ ആ ഓ ശ്

അത് ആ

ആ അപ്പോൾ അടുത്ത ദിവസം തന്നെ ഞാന് ഒന്നൂടെ വിളിക്കാം വരുമ്പഴേക്കിനും ഒന്നൂടെ വിളിക്കാം അപ്പം ആ ക്ലിയറായിട്ട് സ്ഥലം ഒന്നൂടൊന്ന് പറഞ്ഞ് തന്നാൽ മതി ഓക്കെയെന്നാൽ